ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളില് പഠിച്ച പുരാതന കാലഘട്ടത്തിലെ മധ്യകാലഘട്ടത്തിലെയും രാജാക്കൻമാരെ എനിക്ക് ഓർമ വരുന്നത് പഴശ്ശി രാജയെ ആയിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന അതേ കാലത്തുതന്നെയാണ് പഴശ്ശിരാജ എന്നുള്ള സിനിമ ഹരിഹരൻ എന്ന സംവിധായകൻ മമ്മൂട്ടിയെ വച്ച് ചെയ്തത് അത് ഞാന് തീയേറ്ററിൽ പോയി കണ്ടത് എനിക്കിപ്പോഴും ഞാൻ മറന്നിട്ടില്ല അപ്പോള് പിന്നെ അത് അന്ന് അതിലെ പാട്ടുകളും പിന്നെ ആ വയനാടൻ കാടുകളിലൂടെയൊക്കെയുള്ള മമ്മൂട്ടിയുടെ മമ്മൂട്ടി എന്ന് പറയുന്ന പഴശ്ശിരാജയ്ക്ക് പിന്നെ ജീവൻ കൊടുത്തത് അന്ന് ആ സിനിമയിൽ മമ്മൂട്ടിയായിരുന്നു അപ്പോള് അത് ആ സിനിമ അന്ന് എന്നെ അത്രയും എൻ്റെ മനസ്സിൽ ഒരു പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം തന്ന സിനിമയായിരുന്നു അത് പിന്നെ അത് മദ്ധ്യകാലഘട്ടത്തിലെയും അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്കരായ ഒരു ഇത് വച്ച് നോക്കുമ്പോള് എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് പിന്നെ ആ സിനിമയിലെ പാട്ടുകളും ആ ആ പിന്നെ സിനിമയ്ക്ക് മമ്മൂട്ടി പിന്നെ പഴശ്ശിരാജയായി ജീവൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഹരിഹരൻ എന്ന സംവിധായകൻ്റെ ആ ഒരു കഴിവുകളും അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത്രയും നന്നായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ സിനിമ